ഞാൻ ഫ്ളിപ്പ്കാർട്ടിൽ നിന്ന് ഒരു രണ്ടു കൊല്ലം മുമ്പ് ഒരു ഇയർ ഫോൺ ഞാൻ ഓർഡർ ചെയ്തിരുന്നു അത് നല്ല ഇയർഫോണാണ് ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചതിൽ ഏറ്റവും മികച്ച ഒരു ഇയർഫോണാണ് അത് എത്രകാലമായി ഉപയോഗിക്കുന്നു രണ്ടു കൊല്ലമായി ഇതിന് ഒരു കുഴപ്പമില്ല സൗണ്ട് ഒക്കെ നല്ല വൃത്തിക്ക് കേൾക്കാം നമ്മളിപ്പോൾ പുറത്തൊരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിച്ചാൽ ഒന്നും നമ്മൾ അറിയില്ല പിന്നെ ഞാൻ അധികം പാട്ടൊന്നും കേൾക്കുന്ന ആളായിരുന്നില്ല പക്ഷേ ഈ ഇയർ ഫോൺ വാങ്ങിയശേഷം ഞാൻ നല്ല രീതിയിൽ പാട്ട് കേൾക്കാനും എപ്പോഴും ഇയർ ഫോൺ വെച്ചിട്ടുണ്ടാകും ഞാൻ നടക്കാറ് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഇയർ ഫോൺ ഉണ്ടാകും ആ ഇയർ ഫോൺ വെച്ചിട്ട് ഞാൻ എങ്ങോട്ടും പോകാറുള്ളൂ ഇപ്പോൾ യാത്ര പോകുകയാണെങ്കിൽ ബസ്സിൻ്റെ സൈഡിലൊക്കെ ഇരുന്നൊക്കെ ഇങ്ങനെ ഇയർ ഫോൺ ഒക്കെ വെച്ച് പാട്ട് കേൾക്കാൻ വളരെയേറെ ഇഷ്ടമാണ് പിന്നെ എപ്പോഴും എൻ്റെ കൈയിൽ ഇയർ ഫോൺ ഉള്ളതു കൊണ്ട് എല്ലാവരും എന്നെ ഇയർ ഫോൺ എല്ലാവരും എന്നെ എന്നെ അറിയുന്നത് ഇയർ ഫോൺ ഉള്ള ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് പിന്നെ ആ ഇയർ ഇയർ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടുമൂന്നു തവണ നിലത്തേക്ക് വീണിട്ടുണ്ട് എന്നിട്ടൊന്നും ഒരു കുഴപ്പവും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എൻ്റെ കൈയിൽ ഇപ്പോൾ ഉണ്ടായിട്ട് രണ്ടു കൊല്ലമായി എന്നല്ലേ പറയുന്നത് അതു രണ്ടുമൂന്നു തവണ വെള്ളത്തിലേക്കു വീഴുകയും അതു പക്ഷേ അതിനൊന്നും ഒരു പ്രശ്നവും ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നല്ല രസമാണ് അതിൽ പാട്ട് കേൾക്കാൻ നല്ല കൃത്യമായിട്ട് നമുക്കെല്ലാം കേൾക്കാം പിന്നെ ഞാൻ ക്ലാസ്സ് ഓൺലൈൻ ക്ലാസ്സൊക്കെ കേൾക്കുന്നത് ഈ ഇയർ ഫോൺ വെച്ചിട്ടാണ് നമുക്ക് നല്ല ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു അനുഭവമാണ് പിന്നെ നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ ഇയർ ഫോൺ വെച്ചു കേൾക്കുമ്പോൾ നമ്മളാ സിനിമയിൽ ഉള്ളതുപോലെ തന്നെ തോന്നും അത്രക്ക് ക്ലിയറും ക്ലാരിറ്റിയും ആണ് അതിൻ്റെ സൗണ്ടിന് ഞാനൊരു തവണ ഇയർ ഫോൺ വെച്ചിരിക്കുന്ന ടൈമിൽ എന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു ഞാനത് അറിഞ്ഞതേയില്ല അത്രയ്ക്കു നല്ല സൗണ്ട് ആയിരുന്നു പുറത്തു നിന്നു വരുന്ന ഒരു ഇതും കേൾക്കില്ല ഈ ഇയർ ഫോണിന് തീരെ പൈസയില്ല ഞാൻ ഇതൊരു ആയിരത്തിനു താഴെ രൂപക്കാണ് ഇതു വാങ്ങിയത് ഇത്രകാലം നിൽക്കുകയും ഇത്ര ഗ്യാരണ്ടിയുള്ള സാധനം എനിക്കു മുൻപു കിട്ടിയിട്ടേ ഇല്ല ആയിരം രൂപയുള്ള ഈ സാധനം ആയിരം രൂപക്ക് താഴെ അതു കിട്ടും അതിൻ്റെ അത് നല്ല ഒരു സാധനമാണ് ഞാൻ അതും ഓഫറിനാണ് ഞാൻ വാങ്ങിയത് എന്നിട്ടും അതിന് ഒരു കുഴപ്പമില്ല നല്ലൊരു പ്രോഡക്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഈ സാധനത്തിനുള്ളത് പിന്നെ ഞാനത് രണ്ടാമതും ഓർഡർ ചെയ്തു അതും ഇതേ പോലെ ഇത്രയും നല്ല രീതിയിൽ തന്നെയാണതിന് വരുന്നത് നല്ലൊരു പിന്നെ വ്യത്യസ്തമായ കുറെ കളറുകളും ഒക്കെ അതിനുണ്ട് പിന്നെ അതിനു നല്ലൊരു കേയിസ് ഉണ്ട് പെട്ടെന്ന് ചാർജ്ജാകും ഞാൻ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ്ജാകും ഒരാഴ്ച വരെ അതൊക്കെ നിൽക്കും ആ ചാർജ് നിൽക്കും പിന്നെ നമുക്കിതു വേണമെങ്കിൽ കു കുത്തുന്ന രീതിയിലും ഉപയോഗിക്കാം